എന്ത് ശ്രദ്ധിക്കേണ്ടത് എന്തായാലും നല്ലോണം ശ്രദ്ധിക്കേണ്ടത് മണ്ണ് ഏത് മണ്ണാണ് ഏത് വളക്കൂറുള്ള മണ്ണ് അത് തന്നെയാണ് പരിശോധിച്ചു പോകേണ്ടത് മണ്ണിൻ്റെ ഘടന അത് നമ്മൾ എന്തായാലും നോക്കേണ്ടതാണ് പിന്നേ വെള്ളം വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത് അത് എന്തായാലും തീർച്ചയായും നോക്കണം കാരണം ജലത്തിൻ്റെ ആവശ്യകത കൃഷിയിടം നോക്കുമ്പോൾ എന്തായാലും അത് വളരെ വലിയ ഒരു എന്താണ് കാര്യമാണ് വെള്ളം കിട്ടായ്മ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കൃഷിയിടം നശിക്കുക എന്ന് മാത്രമല്ല അതിൽ നമ്മുടെ അവിടെ ഒരു കൃഷി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലല്ലോ ഇപ്പം ഒരു വാഴ കൃഷിയാണെങ്കിൽ വെള്ളം എത്രത്തോളം വേണം അത് ഒന്ന് നോക്കണം നെൽ കൃഷി പിന്നെ നെല്ല് അത്രയ്ക്കും വേണ്ടെങ്കിലും വേണം എന്നുള്ളത് അത് എന്തായാലും ജലമില്ലാതെ പറ്റില്ല പിന്നെ മണ്ണ് എന്തായാലും നോക്കണം ഓരോ ഓരോ ഇതിനും ഓരോ കൃഷിക്കും വ്യത്യസ്ത തരം മണ്ണാണ് വേണ്ടത് കാരണം വയൽ വയലിൻ്റെ സൈഡ് നടന്നു കൃഷി അതൊക്കെ വയലിൽ കണ്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് അപ്പം കൃഷിയിടം നോക്കുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോരോ കൃഷി വാഴ കൃഷി ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത എന്തായാലും നോക്കേണ്ട ഒരു അത് വളരെ അനിവാര്യമായ കാര്യമാണ് ജലം പിന്നെ വളം വളം അത്യാവശ്യം എന്തായാലും കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം പിന്നെ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അവിടെ ഇങ്ങനെ വേറെ ജീവികൾ വന്നു നശിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്